ഇപ്പോൾ ഞങ്ങൾക്ക് എന്നൊക്കെ പറഞ്ഞുകഴിഞ്ഞാൽ മാ മൽസ്യസമ്പന്നവുമായി ബന്ധപ്പെട്ട് വലിയ അതായത് കടൽ കാര്യങ്ങളൊന്നും ഇല്ല ഇപ്പം നമുക്കിവിടെ പുഴകളും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉള്ളൂ ഡാം അങ്ങനത്തെയൊക്കെ കാര്യങ്ങളെ ഉള്ളൂ അപ്പം ആ അതിലൂടെ നമുക്ക് ഈ ബോട്ട് കാര്യങ്ങളൊന്നും ഓടിക്കേണ്ട ഒരവസ്ഥ വന്നിട്ടില്ല ഇപ്പോൾ കൂടുതലായിട്ടും മലിനീകരണം ഉണ്ടാവുന്നത് കടൽ ആ സ്ഥലങ്ങളിലൊക്കെയാണ് കാരണം എന്തെന്ന് വെച്ചെങ്കിൽ അവിടെ ബോട്ട് ഓടിക്കുന്നതുകൊണ്ട് അവരുടെ ഡീസൽ കാര്യങ്ങളും പുകയും അതെല്ലാം ഈ എന്താണ് പറയുക വെള്ളത്തിലേക്കാണ് പോകുന്നത് അപ്പം കുറേ മീനുകളൊക്കെ ചത്തുപോവാനും എല്ലാ കാര്യങ്ങൾക്കും സാധ്യത കൂടുതലാണ് അപ്പം വേറെയെന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ജലമനി ജലമലിനീകരണം ഉണ്ടാവാൻ ഉണ്ടാവാനുള്ള സാധ്യത പറഞ്ഞുകഴിഞ്ഞാൽ കൂടുതലായിട്ടും ഈ ഫ്ളാറ്റുകൾ ഇവിടുന്നുള്ള മാലിന്യങ്ങൾ പിന്നെ വേറെ വ്യവസായകേന്ദ്രങ്ങൾ ഇവിടുന്നുള്ള മാലിന്യങ്ങളൊക്കെ നേരെ ഒഴുക്കുന്നത് ഈ പുഴയിലേക്കും ആ കടലിലേക്കുമൊക്കെയാണ് അപ്പം അല്ലാണ്ട് ജലമലിനീകരണവും കാരണങ്ങളൊക്കെ ഉണ്ടാവാറുണ്ട് അത് നമ്മളെ ശ്രദ്ധയിലും അങ്ങനെ കണ്ടിട്ടുണ്ട് ഞാൻ ആലപ്പുഴയിൽ നിന്നൊക്കെ പോയപ്പോൾ അവിടെ വല്ലാണ്ട് അവരുടെ കൈ കഴുകുന്ന വെള്ളവും നമ്മൾ ബാത്റൂമിൽ പോവുന്ന വെള്ളവും എല്ലാം നേരെ പോവുന്നത് അവിടുത്തെ കായലിലേക്കാണ് ഇപ്പം ജലം വല്ലാണ്ട് മലിനീകരണം ആയിട്ട് എൻ്റെ ശ്രദ്ധയിൽ പെട്ടിട്ടുണ്ട്